തീർച്ചയായും വായു നിയന്ത്രണത്തിന് ഏറ്റവും നല്ല പ്രാധാന്യം തന്നെയാണ് നമ്മളുടെ പാട്ടിൽ ഉള്ളത് കാരണം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പാട്ട് പാടുമ്പോൾ വായു നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പാട്ട് ആ പാട്ടിൻ്റെ താളവും ഈണവും ആകെ നമുക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കില്ല കാരണം നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു നമുക്ക് എന്താ പറയുക നമുക്കൊരു ഡിസ്റ്റർബെൻസ് തന്നെ നമുക്കത് തോന്നുന്നതാണ് നമുക്ക് പാടാനുള്ള ആത്മവിശ്വാസവും വായു നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്നതാണ് നമ്മൾ ഉദാഹരണത്തിന് മൈക്കിലാണ് പാടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത് കാരണം എന്താ ചോദിച്ചാൽ നമക്കുതന്നെ ഒരുപാട് നമ്മൾ പാട്ടുകൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരാള് പാടുമ്പോൾ അധികവും ഈ ശ്വാസം വിടുന്നത് ആയിരിക്കും കേൾക്കുന്നത് പക്ഷേ അതൊരിക്കലും ഒരു ആസ്വദിക്കാൻ ഒരു രസമുണ്ടായിരിക്കില്ല ആ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് സാധകം ചെയ്യുകയും നന്നായിട്ട് നമുക്ക് നന്നായിട്ട് പരിശീലിക്കുകയും ഒക്കെയുണ്ടെങ്കിൽ മാത്രമാണ് ഈ വായുനിയന്ത്രണമെന്നുള്ളത് സാധിക്കുകയുള്ളൂ നന്നായിട്ട് സാധകം ചെയ് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽനിന്ന് രക്ഷപ്പെടാവുന്നതാണ് പിന്നെ അതേപോലെ ഇപ്പോൾ മൈക്കിലാണ് പാടുന്നത് എന്ന് ഉണ്ടെങ്കിൽ എങ്ങാനും ഇപ്പോൾ വരുകയാണ് നമ്മളെ ശ്വാസം പെട്ടന്ന് വരുകയാണെന്നുണ്ടെങ്കിൽ പെട്ടന്ന് മൈക്ക് മാറ്റാനും നമ്മൾ ആലോചിക്കേണ്ടതാണ് അത് നമ്മള് തുടർച്ചയായ പരിശീലനം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്